റെൻറിനല്ലേ ഓക്കെ ഓക്കെ ഹ്മ് അപ്പം നിങ്ങൾ എത്ര രൂപേൻറെ ഓക്കേ മൂവായിരം അപ്പം നമ്മൾ സിറ്റി ഭാഗത്തോട്ടൊക്കെ വരുമ്പം പത്തിൻ്റെ പത്തിൻ്റെ അടുത്ത് പത്തിൻ്റെ മേലോട്ടൊക്കെ ആവും നമുക്ക് ഗ്രാമ പ്രദേശം ഒക്കെ മതിയോ ഉള്ളിലോട്ട് ആ അത് അത് നമുക്ക് നോക്കാം നമുക്ക് ഈ സിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൗൺ ഏരിയ വരുമ്പോഴേ നമുക്ക് ഹ്മ് പിന്ന ഫ്ലാറ്റ് അങ്ങനെ ഒക്കെ ഉള്ളതൊക്കെയാണ് വരുന്നത് പിന്നെ ഒറ്റയ്ക്ക് ഫ്ലാറ്റ് മതിയോ മാം ഈ ഫ്ലാറ്റ് ആകുമ്പം അവർ നമ്മുടെ അടുത്തേക്ക് അങ്ങനെ വരിക ഒന്നുമില്ല അവർ അവരുടെ കാര്യം നോക്കി അങ്ങ് പോവുകയാണ് ചെയ്യുക അപ്പം നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല നമുക്ക് പാർക്കിംഗ് ഏരിയയും ഒക്കെ ഉണ്ടാവും അല്ലാതെ നമ്മൾ നോക്കുവാണെങ്കിൽ വീടായിട്ട് നോക്കാം അല്ലേ നല്ല ഒരു രണ്ട് നില വീടൊക്കെയാണോ ഉദ്ദേശിക്കുന്നത് ഒറ്റ നില മതിയോ കാർ പാർക്കിംഗും കാര്യങ്ങളൊക്കെ മതി അല്ലേ ഓക്കേ ഓക്കേ ഓക്കേ അപ്പം നമുക്ക് രണ്ട് മൂന്ന് വീട് ഉണ്ട് അപ്പം വന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടം ആവുകയാണെങ്കിൽ നമുക്ക് അവർ അഞ്ച് ഒരു വീടിന് അഞ്ചാണ് പറയുന്നത് ഒന്നിന് പിന്നെ ഒരു ഏഴ് പറയുന്നു ഒന്ന് ഒരു നാല് അഞ്ഞൂറിന് ഒരു വീടുണ്ട് അതൊരു അധികം ഇല്ല രണ്ട് ബെഡ്റൂമും ഒരു ഹാളും ഒരു കിച്ചനും ആ ആണ് ചെറിയൊരു വീടാണ് പിന്നെ കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട് പിന്നെ അത്ര അടുത്ത് വീടില്ല പിന്നെ റോഡ് റോഡ് ഉണ്ട് നമുക്ക് റോട്ടിലോട്ട് റോട്ടിൽ കൂടെ വണ്ടി പോകുന്ന റോഡ് ആണ് പക്ഷേ അടുത്തൊന്നും വീടൊന്നും ഇല്ല ഒരു ഒരു ചെറിയ വീടാണ് വന്ന് നോക്കി നോക്ക് നിങ്ങൾക്ക് ഇഷ്ടം ആവുകയാണെങ്കിൽ നമുക്ക് നോക്കാം വേണമെങ്കിൽ അവരോട് സംസാരിച്ച് വേണമെങ്കിൽ കുറച്ച് തരാൻ പറ്റുമെങ്കിൽ അങ്ങനേയും നോക്കാം വന്ന് വെള്ള സൗകര്യം ഉണ്ട് അവിടെ സ്വന്തമായിട്ട് അവർക്ക് കിണർ ഉണ്ട് ആ കിണർ ഉണ്ട് എല്ലായിടത്തും കിണർ ഉണ്ട് വെള്ളം ഉണ്ട് നല്ല അത്യാവശ്യം ഉള്ള ആഴ്ചയുള്ള കിണർ ആണ് അപ്പം പിന്നെ പിന്നെ പൈപ്പ് വെള്ളം വരുന്നുണ്ട് പേടിക്കാനില്ല നമുക്ക് രണ്ട് ടാങ്ക് ഉണ്ട് അപ്പം നമുക്ക് പൈപ്പ് വെള്ളം വരുന്ന ദിവസം നമുക്ക് അങ്ങനെ അടിച്ച് കയറ്റാം ടാങ്കിലോട്ട് പിന്നെ ഒന്ന് നമുക്ക് പിന്നെ കിണറ്റിലെ വെള്ളവും അടിക്കാം അപ്പം വലിയ ഇതാക്കാനുള്ള പ്രശ്നം അങ്ങനെ വലിയ ഇത് വരില്ല വലിയ ടാങ്ക് ആണ് നമുക്കൊരു മൂന്ന് ദിവസം കൂടുമ്പം ഒക്കെ അടിച്ചാൽ മതി അപ്പം നമുക്ക് ഒരു ദിവസം കുറച്ച് ദിവസം നേരം അടിച്ചാൽ മതിയല്ലോ ഒരു പത്ത് മിനിറ്റ് അടിച്ചാൽ മതിയല്ലോ ഓക്കേ ഓക്കേ ആ ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ വരുന്നതിന് മുമ്പ് ആ ഓക്കേ ശരി എന്നാൽ അതെ അതെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി ശരി എന്നാൽ